എൻ്റെ പ്രിയപ്പെട്ട ചില ബൈക്കുകളുണ്ട് എം വി അഗുസ്താ സ്പെഷ്യൽ അവരുടെ ഒരു ബൈക്കാണ് എൻ്റെ ഏറ്റും വലിയ ഡ്രീം ബൈക്ക് സ്വപ്നങ്ങളിൽ ഞാൻ കൺ ഞാൻ ഓടിച്ചു വരുന്ന ആ ബൈക്കാണത് എൻ്റെ വീട്ടിലെ ബൈക്ക് പൾസർ ടു ട്വൻ്റി എഫാണ് അതിൻ്റെ കളർ അതിൻ്റെ നിറം ബ്ലാക്ക് ആണ് ബ്ലാക്കും കറുപ്പും ചുവപ്പും ആയിട്ടുള്ള കളർ ആണ് അതിൻ്റെ നമുക്ക് എനിക്ക് പിന്നീട് ഇഷ്ടമുള്ളൊരു ബൈക്ക് അതും ഓടിച്ചിട്ടു തന്നെ ഇഷ്ടമായിട്ടുളള ഒരു ബൈക്കുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ അവരുടേതായിട്ടുള്ള ലോങ്ങ് ഒരു നീളമുള്ള ഒരു വണ്ടിയുണ്ട് അതിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല അതിപ്പോൾ എങ്ങനെയാണ് പറയുക അതിൻ്റെ പേര് ഒരു ഒരു നീളൻ വണ്ടിയുടെ പേരാണ് തണ്ടർ ബോൾട്ടിൽ നിന്നും ഉത്ഭവിച്ചു വന്ന ഒരു വണ്ടിയാണത് അതിൻ്റെ പേര് റോയൽ എൻഫീൽഡ് ബുള്ളറ്റല്ല ക്ലാസിക്കല്ല ഹിമാലയനല്ല വേറെ ഏതോ ഒരു വണ്ടി ആണ് അതിൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല പക്ഷേ അതാണെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇതുവരെ ഓടിച്ചിട്ടുള്ള വണ്ടി അതിനോട് ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു വണ്ടി വേറെയുണ്ട് ഹോണ്ടയുടെ ഹൈനസ് ആ വണ്ടിയാണ് എനിക്ക് പിന്നെയും ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ ആ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആ വണ്ടിയുടെ പേരെനിക്ക് ഓർമ്മ വന്നു മീറ്റിയോർന്നാണ് അതിൻ്റെ പേര് മീറ്റിയോർ സിക്സ് ഫിഫ്റ്റി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ മൂത്ത ചേട്ടൻ എന്ന രീതിയിൽ പറയാവുന്നത് അല്ലെ വിശേഷിപ്പിക്കാവുന്ന ഒരു മറ്റൊരു ബൈക്കുണ്ട് സൂപ്പർ മീറ്റിയോർ അതാണ് എനിക്ക് വാങ്ങിക്കണം എന്ന് വ എന്ന് നല്ല ആഗ്രഹമുള്ള അല്ലെങ്കില് ആഗ്രഹമുണ്ടായിട്ടുള്ള ബൈക്ക് ഞാൻ ആദ്യം പറഞ്ഞ എം വി അഗുസ്താ അത് ഒരു ഭംഗിയുടെ പേരിൽ മാത്രമാണ് അത് എനിക്ക് ഇഷ്ടമായത് അതു ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല ഓടിച്ചാൽ എന്തായാലും എൻ്റെ മനസ്സിൽ തള്ളിപ്പോകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്